ആ ഇതു കെ എസ് സി ബി അല്ലെ ഞാൻ കറണ്ട് ഇല്ലാത്തതു കൊണ്ട് വിളിക്കുകയാണെ ഇന്നു പകൽ മൊത്തം കറണ്ടില്ലായിരുന്നിവിടെ ഒൻപത് മണിതൊട്ട് അഞ്ചു മണിവരെ കറണ്ടില്ലായിരുന്നു എന്തോ ഒരു അറ്റകുറ്റപണികൾ നടക്കുന്നത് കൊണ്ട് കറണ്ടില്ലായിരിക്കുമെന്നു പത്രത്തിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പം രാത്രി വീണ്ടും കറണ്ട് പോയിരിക്കുകയാണ് ഒന്നാമത് മഴയും ഒക്കെയാണിവിടെ നല്ല മഴയും തണുപ്പുമൊക്കെയാണ് പിള്ളേർക്കാണെങ്കിലും പരീക്ഷയൊക്കെ ആണ് ഞങ്ങൾക്ക് ഈ ഫുഡ്ഡൊക്കെ ഉണ്ടാക്കാനായാലും എന്തിനായാലും കറണ്ട് ആവശ്യമാണ് അപ്പം ഇതെപ്പം വരുമെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരുപാട് പ്രാവശ്യം കെ എസ് സി ബിയിൽ വിളിച്ചു ആരും എടുത്തില്ല പിന്നെ പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ്സുമുണ്ട് ആ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ കറണ്ടില്ലാതെ പറ്റത്തില്ല ഇത് എത്ര എ പകൽ പോയ സ്ഥിതിക്കിപ്പം രാത്രിയും പോയെന്നു പറയുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണ്